ബൈക്ക് റെന്റൽ കമ്പനി ആണോ അപ്പോൾ ഞങ്ങൾ ഒരു നാലു പേരാണേ കപ്പിള്സ് ആയിട്ട് വരുന്നതാണ് അപ്പം പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണേ വരുന്നത് അപ്പം കേരളം മുഴുവനായിട്ടും അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്നു ജില്ലകൾ എന്തായാലും ഒന്ന് കവർ ചെയ്യാന് വേണ്ടി ആയിരുന്നു അതായത് ഫുഡിന്റെ കാര്യങ്ങൾ അപ്പം ബൈക്ക് അവൈലബിള് ആണോ എന്ന് അറിയാന് വേണ്ടിയായിരുന്നു ആ തൗസൻഡ് ടു ഹൺഡ്രഡ് തൊട്ടല്ലേ നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ റേറ്റ് ആണോ അതോ എല്ലാത്തിനും ഒരേ റേറ്റ് ആണോ ആണല്ലേ അത് ഏത് വണ്ടിക്കാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ എല്ലാ ആ പിന്നെ ഈ ഹിമാലയന് ബുള്ളറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ആണല്ലേ ഊ ഓക്കെ ഓക്കെ പിന്നെ ഹെല്മെറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങള് തരുവോ അതോ ആണ് അല്ലേ ഹാ ഹാ നമ്മൾ ഇപ്പം മോര്ണിംഗ് കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ ഈവനിംഗ് വണ്ടി കൊണ്ടു വരണം എന്നുണ്ടോ അതോ നമ്മൾ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ ആണല്ലേ ട്വന്റി ഫോര് ഹവര്സിന് എത്രയാണ് റേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നാല് പേരാണ് കേട്ടോ ആ

ആ നമ്മൾ നാല് പേരാണ് വരുന്നത് അപ്പോൾ ഓരോ അതായത് കപ്പിള്സ് ആണ് അപ്പോൾ രണ്ട് വണ്ടി മതി മ് അപ്പം നമ്മള് നേരത്തെ ബുക്ക് ചെയ്യണോ അതോ നമ്മള് അന്ന് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ റെഡി ആക്കി തരുവോ എങ്ങനെയാണ് ആണല്ലേ ആ ഓക്കെ ആ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ക്വയറിക്ക് വേണ്ടി വിളിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് വന്നിട്ട് കാലിക്കറ്റ് അല്ലേ കാലിക്കറ്റ് ടൗണില് തന്നെയല്ലേ നിങ്ങളുടെ ഷോപ്പ് ആ എന്നാൽ ഞങ്ങൾ നേരിട്ട് വന്നിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തോളാം ഓക്കെ ഓക്കെ റ്റാ ആ ഓക്കെ താങ്ക്യൂ